മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ചു ഞങ്ങളുടെ സ്കൂള് വളരെ അധികം മികച്ച ഒരു സ്ക്കൂളാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ സ്പോർട്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസിലും ഞങ്ങളുടെ സ്കൂൾ വളരെ അധികം മികവ് പുലർത്തുന്നു സ്കൂളിലെ മറ്റു പാഠ്യപദ്ധതികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ധാരാളം എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റികളും കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി വളർത്തിയെടുക്കുന്നതിനും ഞങ്ങടെ സ്കൂള് വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വളരെ അധികം മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ചു ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളുകളിൽ വളരെ അധികം നല്ല ഒരു മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണ് ധാരാളം നല്ലതായ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടന്നു കൊണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും പ്രാവർത്തികമാക്കുന്നതും അത് സാധാരണക്കാർ ഉൾപ്പെടെ ഏറ്റവും മികച്ചവരും പല തട്ടുകളിൽ പെട്ട കുട്ടികളാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നത് അതിലൂടെ നാം സമൂഹത്തിൻ്റെ വിറ്റു നാനാ തുറകളിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളെത്തിക്കുകയും അതിൻ്റെ ഉപയോഗം മറ്റുള്ളവരിലേക്കും എത്തിക്കുകായെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൽ ഇത്തരം ധാരാളം പാഠ്യപദ്ധതികൾ നടത്തുന്നത് ഇതിൻ്റെ മോശവശങ്ങൾ പറയുകായന്നു വച്ചാൽ എല്ലാവരും ഒരുപോലെ ഈ ഇത്തരം പ്രവർത്തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ മോശവക്ഷ വശം നാം എത്രത്തോളം ഉപയോഗപ്രദമാകും എന്ന് കരിതി മുന്നോട്ട് കൊണ്ട് വരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ അത് വേറെ ഒരു രീതിയിലായിരിക്കും നേടിയെടുക്കുന്നത് ശ്രദ്ധിക്കിന്നത് ഇത് ഇതിലൂടെ നമ്മൾ വിചാരിക്കുന്ന അത്ര തന്നെ ഒരു എക്സെപ്റ്റൻസ് പ്രവത്തനങ്ങൾക്ക് കിട്ടണം എന്നില്ല ഇതാണ് നാം പറയുന്ന ഒരു മോശം വശം എന്ന് തന്നെ പറയാം കൂടാതെ വളരെയധികം ഒഴിഞ്ഞ ഒരു പ്രദേശത്താണ് നമ്മുടെ സ്ക്കൂൾ നില നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും എത്തിപ്പെടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു അത് എന്നില്ല അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ധാരാളം ബസ് ഫെസിലിറ്റീസും സ്കൗട്ട് ഗെയ്ഡ് ബാൻ്റ് ഡാൻസ് ഡ്രോയിങ് കളറിംഗ് സ്കൈറ്റിങ് തുടങ്ങിയ ധാരാളം പാഠ്യപദ്ധതി പ്രശ്നമോ പ്രശ്നോത്തരികൾ നമ്മുടെ സ്കൂളിൽ നടത്തുന്നുണ്ട് ഇതിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ പങ്കെടുപ്പിച്ചു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ തന്നെയും പലരും ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായി നാം കാണാൻ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നു ഇതിൻ്റെ കാരണമെന്തെന്ന് വച്ചാൽ എല്ലാവരും ഒരേ രീതിയിൽ ഇത്തരം പാഠ്യപദ്ധതികൾ പാഠ്യപ്രവർത്തനങ്ങളെ പഠ്യേതര പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം കെ ജി ക്ലാസ്സുകൾ മുതൽ തന്നെ കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള താൽപ്പര്യം വളർത്തി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വച്ചിരിക്കുന്നത് പഠ്യേതര പ്രവർത്തനങ്ങൾ വച്ചിരിക്കുന്നത് ഇതിൽ എല്ലാ കുട്ടികളെയും പൂർണമായും പങ്കെടുപ്പിക്കുന്നതോടു കൂടി അവരുടെ സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കുകയും അവരെ സമൂഹത്തിൻ്റെ നാനാതുറകളെ വളരെ മിടുക്കന്മാരായി മുന്നോട്ടു കൊണ്ടു വരിക യും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂള് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ എല്ലാവരും ഒരുപോലെ പങ്കു ചേർന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും വരും തലമുറയിലേക്ക് മികച്ച ഒരു പ്രകടനം കാഴ്ച്ച വയ്ക്കുകയുള്ളു ഇന്നത്തെ കാലത്ത് എഴുത്തും പഠിത്തവും മാത്രം കൊണ്ട് ഒരു കുഞ്ഞ് പൂർണമായ വളർച്ചയിലേക്ക് അവരുടെ പൂർണമായ സാമൂഹിക വളർച്ചയിലേക്ക് എത്തിപ്പെടും എന്നതിനെ പറ്റി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്തെന്ന് വച്ചാൽ ഇന്ന് വളരെ അധികം കോമ്പറ്റേറ്റീവായ ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് അത് കാരണം കുഞ്ഞുങ്ങൾ എല്ലാ പാഠ്യ പദ്ധതികളിൽ എന്നതിൽ പോലെ തന്നെ പഠ്യേതര പദ്ധതികളിലും എക്സ്ട്രാകരിക്കുലർ ആക്റ്റിവിറ്റീസ് ആർട്സ് സ്പോർട്സ് എന്നീ ആക്റ്റിവിറ്റീസിലും കുഞ്ഞുങ്ങൾ പൂർണമായും പങ്കെടുത്ത് അവരുടെ കഴിവ് തെളിയിക്കുന്നതിലൂടെ മാത്രമേ ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളു വളരെ അധികം നമ്മൾ ഇത്തരം ഇട്ടാ ഇട്ടാ വട്ടത്ത് കുറച്ച് പ്രദേശത്തുള്ളവരെ മാത്രമേ നാം കാണുന്നുള്ളൂ എങ്കിൽ തന്നെയും വളരെ അധികം ഒരു കോമ്പറ്റേറ്റീവ് ആയ ഒരു സമൂഹത്തിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് അവരോട് കിടപിടിച്ച് നിന്ന് ജയിക്കണമെങ്കിൽ നാം വളരെ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു അതിന് രക്ഷകർത്താക്കൾ ടീച്ചേഴ്സിനോടൊപ്പം സ്കൂളിനോടൊപ്പം ഒത്തൊരുമയോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സാധ്യമാവുകയുള്ളു ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തിരിച്ചറിവാണ് എല്ലാ സ്കൂളുകളുടെയും വിജയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് സമൂഹത്തിൽ ഇത് സമൂഹത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ അംഗീകരിക്കുകയാണ് എങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇത്തരം മികച്ച പ്രകടനം കാഴ്ച്ചവയ്ക്കുന്ന സ്കൂളുകൾ മുന്നോട്ട് വരികയും അവ ജയിച്ചു മുന്നേറുവാൻ സാധ്യമാവുകയും ചെയ്യുന്ന ധാരാളം ഫെസിലിറ്റീസ് ആണ് നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ് അവരുടെ ലക്ഷ്യം